ആ ഇന്ന് നിങ്ങടെ ഊബർ സർവീസിൽ നിന്നു ഞാനൊരു ഊബറ് ക്യാബ് ബുക്ക് ചെയ്തിരുന്നു അത്യാവശ്യം രാത്രി ആയിരുന്നു അത്യാവശ്യം നല്ല സമയമായിരുന്നു അപ്പം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ ക്യാബ് ഡ്രൈവർ വളരെ മാന്യമായ രീതിയിലാണ് എന്നോട് പെരുമാറിയത് അതുമാത്രമല്ല എന്നെ സുരക്ഷിതമായി അവർ വീട്ടിലെത്തിക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടും എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എന്നിട്ടും ലേറ്റ് ആയതുകൊണ്ടും എന്നെ പിക്ക് ചെയ്യാൻ വരാൻ ആളു ആരും ഇല്ലാത്തതുകൊണ്ടും ആയിരുന്നു ഞാൻ നിങ്ങളുടെ ക്യാബ് ക്യാബിൻ്റെ സഹായം തേടിയത് പക്ഷേ ഞാൻ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല വളരെ വളരെ സുരക്ഷിതമായി മാന്യമായ രീതിയിൽ അയാളെന്നോട് പെരുമാറി അതേപോലെത്തന്നെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുകയും ചെയ്തു ഞാൻ അതിൽ ഒരു നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ ഒരു കാലത്ത് ഒരാൾ അങ്ങനെ പെരുമാറുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല സോ അദ്ദേഹം അദ്ദേഹം ആരായിരുന്നാലും അദ്ദേഹത്തിന് ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു കാരണം അയാളുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ചിലപ്പോൾ ഒരു അഡ്വാൻറ്റേജായി എടുക്കാൻ ശ്രമിച്ചേനെ കാരണം അത്രയും രാത്രി ആയിരുന്നു പക്ഷേ എന്നെ ഒരു സഹോദരി അല്ലെങ്കിൽ മോളെപ്പോലെ കണ്ടിട്ട് അത്രയും സുരക്ഷിതമായാണ് എന്നെ വീട്ടിലെത്തിച്ചത് അതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അതിനോടുകൂടി നിങ്ങളുടെ നിങ്ങളുടെ ക്യാബു ക്യാബ് സർവീസിനോടുള്ള എൻ്റെ വിശ്വാസവും ഇരട്ടിക്കുകയാണ് ചെയ്തത് ഞാൻ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല സുരക്ഷിതമായ ക്യാബ് ഡ്രൈവർസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് മനസിലായി സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേർസിനും എല്ലാവർക്കും ഇത് റെക്കമെൻറ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ഒരുപാട് നന്ദി പറയുന്നു